ഞാൻ ചെയ്ത പാചകത്തിൽ ഞാൻ ഉദ്ദേശിച്ചതുപോലൊരു വിധി വന്നില്ല എങ്കിൽ അത് ആ വിധി മാറ്റി അത് നല്ല രീതിയിലുള്ളതാക്കാനായിട്ട് പരിശ്രമിക്കും ഉപ്പ് കൂടുതലാണെങ്കിൽ അതിൽ രണ്ട് ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ട് ആ ഉപ്പ് കുറയ്ക്കാൻ ശ്രദ്ധിക്കും എരിവു കൂടുതലാണെങ്കിൽ അതിൽ തേങ്ങ അരച്ചുചേർത്ത് എരിവ് കുറയ്ക്കാൻ ഞാൻ ശ്രമിക്കും